എന്റെ വീടിന്റെ അടുത്ത് ഏറ്റവും വലിയൊരു നദിയാണ് കല്ലാറ് എന്ന് വെച്ചാല് അത് കുഴുത്തുടൂന്ന് പറഞ്ഞ സ്ഥലവും വണ്ടൻമേട് രണ്ടിടത്ത് നിന്ന് വരുന്ന തോടുകള് ഒന്നിച്ച് വന്ന് കൂട്ടാറായിട്ട് ഒഴുകിയാണ് ഈ കല്ലാറെത്തുന്നത് കല്ലാറ് ഡാമിൽ വന്ന് ഡാമിൽ വെള്ളം ശേഖരിച്ച് അവിടെ നിന്ന് നമ്മള് വൈദ്യുതി ഉൽപ്പാദനത്തിനൊക്കെ ആയിട്ട് ജലം സ സംരക്ഷിക്കാറൊക്കെയുണ്ട് അപ്പം നദികള് ആ കല്ലാര് ഡാമിലെ വെള്ളമാണ് എരട്ട്യാര് ഡാമിലേക്ക് ചെല്ലുക ഇരട്ടിയാർ ഡാമിൽ നിന്ന് വെള്ളം തുരങ്കം വഴി അത് ഏറ്റവും വലിയ ഡാമായ ഇടുക്കിയിലേക്ക് ചെല്ലുന്നു അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഡാമാണ് മുല്ലപ്പെരിയാറ് എന്റെ തമിഴ്നാട്ടിലെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് അപ്പം പച്ചക്കറി അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കിട്ടും അതുപോലെ തന്നെ മല്സ്യബന്ധനത്തിനായിട്ട് ഡാമുകളില് മല്സ്യബന്ധനങ്ങള് നടത്തുന്നത് ഇപ്പം പുഴയിൽ കൂടെ ഒക്കെ വെള്ളം പൊങ്ങുന്ന സമയത്ത് ഒരുപാട് ആള്ക്കാര് ചൂണ്ടയിടുകയും വലയിടുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ഒക്കെ നമുക്ക് മീനിനെ പിടിക്കും അങ്ങനെ മല്സ്യബന്ധനം നടത്തുന്നുണ്ട് പിന്നെ ഇടുക്കിയിലൊക്കെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇപ്പം ഏലം പോലെ ഉള്ള കൃഷികള്ക്കൊക്കെ വെള്ളം ഡാമിൽ നിന്ന് ഉപയോഗിക്കും